കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പം കുഞ്ഞു കുട്ടികള് അപ്പം നമ്മള് പ്രൈമറി പ്രീ പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ എജുക്കേഷൻ ആണ് ഹയർസെക്കൻഡറി അങ്ങനെ പിന്നെ കോളേജ് തലങ്ങൾ അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ നമ്മള് വെച്ച് കഴിഞ്ഞാല് പ്രീ പ്രൈമറി പഠിക്കുന്നവർക്ക് എന്താ പറഞ്ഞാൽ അപ്പർ ലോവറി അങ്ങനെ ഓരോ നഴ്സറി സ്കൂളുകള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയ കാര്യങ്ങള് അവര് ഒന്ന് രണ്ടും ഒന്ന് രണ്ടും ചേരുന്നതും എ ബി സി കാര്യങ്ങളൊക്കെ ചെറിയ തലങ്ങളിൽ പഠിച്ചു വരുന്നു അതുപോലെ തന്നെ പിന്നെയുള്ളവർക്ക് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് അങ്ങനെയാണ് പോകുന്നത് അപ്പം നമ്മള് പത്തില് ഒര് എക് എക്സാം ഉണ്ട് മോഡ് മെയിൻ എക്സാം പിന്നെ പ്ലസ് ടു നമുക്ക് പത്തിന്ന് പ്ലസ്ടുല് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്ലസ് ടു പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നല്ലൊരു മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ അത് പിന്നെ അവർക്ക് സെലക്ട് ചെയ്യാം ഏത് വിഷയം വേണം അതുപോലെ തന്നെ ഹുമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് അങ്ങനെ അവരവരുടെ കരിയറിന് ആവശ്യമായ ഓപ്ഷൻസ് അവർ തിരഞ്ഞെടുക്കുന്നു അതുകഴിഞ്ഞ് നമുക്ക് ഡിഗ്രി ഡിഗ്രിക്ക് പോകാൻ വേണങ്കിൽ അതുപോൽ തന്നെ ചിലപ്പോൾ ബി എസ് സി അങ്ങനെ നേഴ്സിങ് ഫീൽഡ് അതുപോലെ തന്നെ എൻജിനീയറിങ് ഫീൽഡ് അതുപോലെ ഒരുപാട് ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നു അങ്ങനെയാണ് പാഠ്യങ്ങൾ പദ്ധതി ഒക്കെ തരംതിരിക്കുന്നത് അതുപോലെ തന്നെ നിർബന്ധിത വിദ്യാഭ്യാസമാണ് പത്ത് വരെ പത്ത് വരേന്ന് വെച്ചാൽ എട്ട് വരെ നമുക്ക് നിർബന്ധിത വിദ്യാഭ്യാസമാണ് അത് കാരണം എല്ലാവർക്കും പുസ്തകങ്ങളും അതുപോലെ തന്നെ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ലോ കാസ്റ്റ് കാറ്റഗറി പിള്ളേർക്ക് നമുക്ക് എന്താ പറയുക് അവർക്ക് പാഠ്യോപകരണങ്ങൾ കൊടുത്ത് അവർക്ക് ഭക്ഷണം അതു പോലെത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മള് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്